ഹലോ ഊബറിൻ്റെ ഏജൻസി അല്ലേ ഞാന് എൻ്റെ പേര് മായ എന്നാണ് ഞാന് നാളെ രാവിലത്തേക്ക് തിരുവനന്തപുരം പോങ്ങുമ്മൂടിൽ നിന്ന് ആറ്റിങ്ങലിലേക്ക് രാവിലെ ഏഴ് മുക്കാൽ ഏഴ് നാല്പത്തി അഞ്ചിന് ഞാനൊരു ഊബർ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ഞൂറ് രൂപയാണ് എനിക്ക് ആപ്പില് ചാർജ് കാണിച്ചത് അപ്പം വിളിച്ചപ്പോൾ ഡ്രൈവറിന് ഇരുനൂറ്റമ്പത് രൂപ മുൻകൂറായി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തിരുന്നു പക്ഷെ എനിക്ക് ആ യാത്രയില്ല ഞാൻ ആ യാത്ര ക്യാൻസൽ ചെയ്യുവാണ് എനിക്കൊരു പരീക്ഷയ്ക്ക് പോകാനായിരുന്നു പക്ഷെ പരീക്ഷ ക്യാൻസൽ ചെയ്തത് കാരണം എനിക്ക് അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം എനിക്ക് ആ ഞാൻ ഓൾറെഡി മുൻകൂറായി അടച്ച ഇരുന്നൂറ്റമ്പത് രൂപ എനിക്ക് തിരികെ വേണം തിരികെ ഞാൻ ചോദിക്കുകയാണ് അപ്പം അതിനുവേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് തിരുവനന്തപുരത്തുനിന്നും ആറ്റിങ്ങൽ ആറ്റിങ്ങലിലേക്ക് ആറ്റിങ്ങൽ ടി ബി ജംഗ്ഷൻ വരെയാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ടാക്സിയാരുന്നു ടാക്സി ടാക്സി അതിൽ കാണിച്ചത് ഒരു വൈറ്റ് കളറിലെ ഇൻഡിഗോ സി എസ്സാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അതെ ആപ്പില് ഞാന് അത് ചെയ്തപ്പോൾ അഞ്ഞൂറ് രൂപയാണ് കാണിച്ചത് അതിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഞാൻ അഡ്വാൻസായി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ എക്സാമിന് എന്തായാലും പോകണ്ട ഈ ട്രാവൽ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പൈസ തിരിച്ചു ചോദിക്കുന്നത് അല്ലല്ല അത് ഇപ്പോൾ നിങ്ങള് മുൻകൂറായി വാങ്ങിയത് ആ ട്രാവല് കൺഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ പക്ഷേ എനിക്കത് വേണ്ട എന്നുള്ളത് ഞാൻ ഇന്നേ പറഞ്ഞല്ലോ നിങ്ങൾക്കത് വേറെ ആർക്കെങ്കിലും വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം ഞാനെൻ്റെ ആ ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റിയമ്പത് രൂപയാണ് തിരിച്ചു ചോദിക്കുന്നത് അത് തിരിച്ചു തരാൻ നിങ്ങള് ബാധ്യസ്ഥരാണ് തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടി കൺസ്യൂമർ കോർട്ടിൽ പോകാനും തയ്യാറാണ് ഓക്കേ നിങ്ങള് നിങ്ങളുടെ ഡ്രൈവറായിട്ട് നിങ്ങളുടെ ഹയർ അതോറിറ്റിയുമായിട്ട് സംസാരിച്ചിട്ട് എനിക്കൊരു മറുപടി ഈ നമ്പറിൽ തന്നെ തിരിച്ചു വിളിച്ചാൽ മതി ആ ഡ്രൈവറിൻ്റെ കൈയിൽ ആ ആപ്പില് എൻ്റെ നമ്പർ ഉണ്ടാവും അതില് നിങ്ങള് വിളിച്ചാൽ മതി ശരി ഓക്കേ താങ്ക്യൂ